ആ അതെ പറഞ്ഞോളൂ മേഡം ആ ആയിക്കോട്ടെ ആ ഓക്കെ നമുക്ക് മാഡം ഇപ്പോൾ ത്രിപിൾ നയൻ തൊട്ട് വണ്ടികൾ സ്റ്റാർട്ടിങ് ആണ് ആ നമുക്ക് ഇപ്പോൾ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് വണ്ടികൾ അവൈലബിൾ ആണ് ടൂ വീലേഴ്സ് പിന്നെ മാഡത്തിന് പ്രീമിയം ബൈക്ക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നോക്കുന്നതെങ്കിലാണ് റേറ്റിൽ വ്യത്യാസം വരുക നോർമൽ നമുക്ക് സ്കൂട്ടികൾ ഒക്കെയാണെങ്കിൽ ഒരു ട്രിപ്പിൾ നയൻ ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആ പെർ ഡേ ആണ് ത്രിപ്പിൾ നയൻ സ്റ്റാ ഇതാവുന്നേ ആ അവർ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈം തൊട്ട് എടുക്കുന്ന ഇത് വരെ അതായത് ഇപ്പോൾ മാഡം ഒരു വൈ ഒരിപ്പോൾ മോണിങ് ഒരു പത്ത് മണിക്ക് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് ദിവസം മോണിങ് പത്ത് മണിയാവുമ്പോൾ വണ്ടി തിരിച്ച് വെച്ചാൽ മതി ആ ട്വെൻ്റി ഫോർ അവേഴ്സ് നമ്മളിപ്പോൾ വൺ പോയിന്റ് റ്റൂ ലിറ്റർ ഇതാണ് കൊടുക്കുന്നത് അതായത് വൺ പോയിൻ്റ് ഫൈവിൻ്റെ അടുത്തുണ്ടാവും ഒന്നര ലിറ്റർ പെട്രോൾ അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും പിന്നെ അതിൽ കൂടുതൽ ഓടണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടി വരും നിങ്ങൾ പെട്രോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഓടിക്കാൻ അങ്ങനെയാണ് പിന്നെ നമുക്ക് പെർ ഡേ റ്റു ഹണ്ട്രഡ് കിലോമീറ്റർസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു ദിവസം നമുക്ക് ഇരുനൂറ് കിലോമീറ്റർ വരെ മാക്സിമം പോവാം ആ ഇരുനൂറ് ഇരുനൂറ്റമ്പത് ആ ഒരിതിൽ പോവാം അതിന് മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റിൽ ചെറിയ വ്യത്യാസം ഒക്കെ വെ വരും ആ ഓ വൈ നോട്ട് മാഡത്തിന് ഏതായാലും നമ്മുടെ ഷോറൂമിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എപ്പോഴും എപ്പോൾ ചോദിച്ചാലും സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മാഡം പത്ത് ദിവസമോ എത്ര ദിവസം ആണെങ്കിലും എടുത്തോളൂ കുഴപ്പം ഒന്നുമില്ല ഉം ആ ഓക്കേ ആ മാഡം വരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളെയൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോളാം ഓക്കേ മാഡം ആയിക്കോട്ടെ ശരി മാഡം